ഓട്ടം നമ്മളെ വളരെ അധികം സഹായിക്കുന്ന ഒന്നാണ് ഞാനിങ്ങനെ കുന്നിൻ ചെരിവിലൂടെയെല്ലാം ഓടിയിട്ടുണ്ട് വനത്തിലൂടെ ഒക്കെ ഒരു ടൂർ പോയപ്പം ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട് നല്ല രസമാണ് നമ്മുടെ കുറച്ച് അഡ്വഞ്ചർ ആണ് സാഹസികത നിറഞ്ഞതാണ് ആയിരുന്നു ആ യാത്ര കൂട്ടുകാരുമൊക്കെ ആയിട്ട് ഓടിയിപ്പം ചെ ചെള്ളയും കല്ലുകളും പാറകളും എല്ലാം നിറഞ്ഞൊരു വഴിയിലൂടെ ഓടുന്നത് സാഹസികമായ ഒരു ഓട്ടമായിരുന്നു നല്ലവണ്ണം ആസ്വദിച്ച ഒരു ഓട്ടമത്സരവും ആയിരുന്നു നല്ല ശുദ്ധവായു ഒക്കെ ശ്വസിച്ച് നല്ല രീതിയിൽ ഓടാനായിട്ട് ഒക്കെ പറ്റി ഇങ്ങനെ സാഹസികതയിലൂടെ തന്നെ ഓടുമ്പോഴും നമുക്ക് നമ്മുടെ ആത്മധൈര്യം വർദ്ധിപ്പിക്കാനും അതുപോലെ നമ്മുടെ നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുവാനും ഓട്ടം നമ്മളെ വളരെയധികം സഹായിക്കുന്നുണ്ട് നമ്മുടെ മസിൽസിന് സ്ട്രെങ്ത് ചെയ്യാനും ഒക്കെ നമ്മൾ നമ്മളെ സ് ഓട്ടം സഹായിക്കുന്നുണ്ട് നമ്മളെ ആരോ നമ്മളെ ആരോഗ്യവാന്മാരാക്കി ഓട്ടം മാറ്റുന്നു ആ വേണ്ടാതെ അടിഞ്ഞു കിടക്കുന്ന ശരീരത്തിലെ കൊഴുപ്പുകളെല്ലാം ഓട്ടത്തിലൂടെ ഓട്ടം എന്ന വ്യായാമത്തിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് നമുക്ക് ആ തുടക്കക്കാർക്ക് ആണെങ്കിലും ആർക്കാണെങ്കിലും പ്രാക്ടീസ് ചെയ്യാവുന്ന ഒരു കായികമാണ് ഓട്ടം എന്ന് പറയുന്നത് ഈ കുന്നിൻ ചെരുവിലൂടെ ഒക്കെ ഓടുന്നത് ശരിക്കും സാഹസികത നിറഞ്ഞ ഒരു വിനോദം തന്നെയാണ് നമ്മൾ വീണേക്കാം മുട്ട് പൊട്ടിയേക്കാം പക്ഷേ അതെല്ലാം അതിജീവിക്കാൻ മുന്നോട്ട് പോകുവാനും ഒക്കെ നമുക്ക് നമ്മുടെ മനസ്സിനെ ആ ആത്മ ധൈര്യം നമുക്ക് പ്രചോദനമേകാറുണ്ട് ഓട്ടം ഇഷ്ടമല്ലാത്തവരായി അങ്ങനെ ആരും തന്നെ കാണത്തില്ലല്ലോ ഓട്ടം നമ്മളെ നമ്മളെ മുന്നോട്ട് പോവാനും എപ്പോഴും മോട്ടിവേറ്റ് ആയിട്ട് ഇരിക്കാനും ഓട്ടം നമ്മളെ സഹായിക്കാറുണ്ട് അതുകൊണ്ട് എല്ലാവരും ഓടണം നമ്മുടെ ജീവിതത്തിലെ എന്താണ് ഇപ്പം നമ്മുടെ വയ്യായ്കകളൊക്കെ ആണെങ്കിലും ഓടിയാൽ ദേഹം അനങ്ങാതിരുന്ന് നമ്മുടെ ദേഹം വേദനിക്കാറുണ്ടല്ലോ ഓട്ടമത്സരത്തിലൂടെ ഓടുന്നതിലൂടെ നമുക്ക് ദേഹം അനങ്ങാനും വ്യായാമം ആണത് നമ്മുടെ ഹൃദയത്തിനും കിഡ്നിക്കും കരളിനും എല്ലാത്തിനും ഒരുപോലെ തന്നെ ഈ ഓട്ടത്തിലൂടെ ഉപയോഗങ്ങൾ ഗുണങ്ങൾ ഗുണങ്ങൾ മാത്രമേ ഉണ്ടാവത്തുളളൂ